കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ ന്യൂസിൽ രാവിലെ ഏഷ്യാനെറ്റിലാണെങ്കിലും മാതൃഭൂമി ന്യൂസിലാണെങ്കിലും ഞാൻ കാണുന്നുണ്ട് ഓരോ വ്യക്തികളും കഷ്ടപ്പെട്ന്നടുന്നതും ഓരോ ഇജ്ജി ഓരോ ഒന്നും രണ്ടും കാര്യങ്ങൾ മിക്കവാറും വാർത്തകളിൽ രാവിലെ ഞാൻ കാണാറുണ്ട് ഓരോരുത്തർ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും വീടില്ലാത്തവർക്കും ഓരോ ആക്സിഡൻ്റ് പറ്റുന്നവരെയൊക്കെ കാണുന്നുണ്ട് അതിന് ധനസഹായം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ മാതൃഭൂമി ന്യൂസ് മിക്കവാറും രാവിലെ ഞാൻ മിക്കവാറും കാണാറുണ്ട് അത് നല്ല ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറയന്നുണ്ട് അവർ ഈ ബാങ്കിൻ്റെ നമ്പരും വെച്ച് ഐ എഫ് സിയോ അങ്ങനെ ഒരുപാട് പേർക്ക് അവർക്ക് സഹായം വിദേശത്തുനിന്നും ഇവിടുടെനിന്നും ഉള്ള വലിയ വലിയ ആൾക്കാരും എല്ലാ സഹായം ചെയ്യുന്നുണ്ട് അത് പിറ്റേന്നോ മൂന്നിൻ്റെയന്നോ അവരത് വാർത്തയിൽ ഞങ്ങളെ വാർത്തയിൽ പറഞ്ഞുകൊണ്ടാണ് അവർക്കിങ്ങനെ സഹായം കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അവർ പറയന്നുണ്ട് അത് മാധ്യമങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് ഇത് രണ്ടിലും ഞാൻ കാണാറുണ്ട് ഒരുപാട് പേർ ഒരുപാട് പേർ ആളുകൾ സഹായിച്ചിട്ടുണ്ട് വിദേശികളും ഇവിടെ ഉഉള്ളവരും എല്ലാവരും അവരാൽ കഴിയുന്നതെല്ലാം അതുവരെ നമ്മുടെ ഈ മൊബൈല് വഴിയും വരാറുണ്ട് എൻ്റെ മോനും ഒക്കെ വരാറുണ്ട് അവരുമൊക്കെ ചിലപ്പം നൂറ് രൂപയായിരിക്കും ഇരുന്നൂറ് രൂപയായാരിക്കും അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇതേപോലെ ഇന്നതാണെന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആളുകളെല്ലാം പൈസ ചെയ്യേണ്ടത് നല്ലൊരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ടു കൊടുക്കാറുണ്ട്

ആ പിന്നെ ഈ ചില ഈ ഇങ്ങനെ വൈകല്യമുള്ളവരേയും കേൾവിക്കുറവുള്ളവർ ബുദ്ധി മാന്ദ്യത ഉള്ളവർക്കും പെൻഷൻ പോലും കിട്ടുന്നില്ലയെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ ഗുളിക വാങ്ങിക്കാൻ പറ്റുന്നില്ലയെന്നുമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വാർത്തകൾ കേൾക്കാറുണ്ട് ഓരോ ദിവസവും ഓരോ വീട്ടുകാരെക്കുറിച്ചും മിക്കവാറും ഈ ഉൾപ്രദേശത്തോട്ടുള്ളവരാണ് ഇവിടെ ഇവിടെ വരെയുള്ള ദൂരം പട്ടണങ്ങളിൽ ഉള്ളതല്ല പുറത്ത് ഗ്രാമങ്ങളിലുള്ളവർ ആദിവാസികളെയൊക്കെ പോലെയുള്ളവരാണ് വീട് ചോർന്നൊലിച്ചവരും ഒരു ആ ക്ഷേമ പെൻഷൻ കിട്ടാതെ ഗുളിക വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും പിന്നെ തിരിച്ച് പൈസ അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ളവരും വീട് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്